ഞങ്ങൾ അതിഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാർ ഉള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെൽകം ഡ്രിങ്ക് അങ്ങനെ അതാവാം നമ്മൾ ഇപ്പോൾ ചായയോ പലഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കും ആദ്യം വന്നപാടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു രാവിലെയാണ് അവർ വരുന്നതെങ്കിലും ഉച്ചക്കാണ് വരുന്നതെങ്കിലും ആദ്യം നമ്മൾ ചായയും എന്തെങ്കിലും പലഹാരം ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ പലഹാരം അല്ലെങ്കിൽ കടയിൽ നിന്ന് കൊണ്ട് വരുന്ന പലഹാരം ഈ പലഹാരങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം കൊടുക്കാറ് അതിനുശേഷം മാത്രമേ നമ്മൾ ചോറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഭക്ഷണം കൊടുക്കാറുള്ളത് ഇപ്പോൾ രാവിലെ വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചായയും കടികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് എന്താണോ ഫുഡ് ഇഷ്ടമുള്ളത് അത് ആദ്യം ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫുഡ് ഉണ്ടാക്കാറുള്ളു കാരണം ചിലരും എല്ലാവരും നോൺ വെജും വെജുമായിരിക്കും കൂടുതൽ ആൾക്കാരും വെജ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ വെജ് ആയിരിക്കും അപ്പോൾ നമ്മൾ രണ്ടും ചിലർ ചിലരുടെ അടുത്ത് ചോദിക്കാൻ മടിയുള്ളത് കാരണം നമ്മൾ രണ്ടും ഉണ്ടാക്കാറുണ്ട് അപ്പം നോൺ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ടും ഉണ്ടാക്കാറ് ചിക്കൻ ബിരിയാണി അങ്ങനെ പലതരം ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കാറ് അത് നമുക്ക് അവർ അവർക്ക് വേണ്ടത്ര എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അത് കൊടുക്കകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ അതിഥികളെ നല്ല രീതിയിൽ പാചകത്തിലൂടെയും അല്ലാണ്ടും നമ്മൾ സ്വീകരിക്കാറുള്ളത്